ഓക്കെ ഹലോ കേൾക്കുന്നില്ലേ ആ അഡ്മിഷൻ എടുക്കാൻ ആണ് രണ്ടാം സ്റ്റാൻ്റേർഡ് എൽ കെ ജിയും

ആ അവരെ യൂനിഫോമും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആ ഞങ്ങൾ ടൗണിലാണ്

അവിടെ ടീച്ചർമാർ എത്രയുണ്ട്

ഓക്കെ ക്വാളിഫൈഡ് ടീച്ചർമാരാണോ